കായിക വിനോദം നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിത ശൈലിക്കും ഏറ്റവും നല്ല രീതിയിലാണ് മുൻപോ മുന്നോട്ട് കൊണ്ടു പോകുന്നതു കാരണം കായിക വിനോദമെന്നു പറയുമ്പോഴത്തേനും ജീവിതത്തിലെല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി നിർത്തി നമ്മുടേതായ നമ്മുടെ കാര്യങ്ങൾ നിലനിർത്താനും അതുപോലെ തന്നെ കായികത്തിൽ കുറച്ചു കൂടി ഏകാഗ്രതയോടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ എല്ലാ വിഷാദ ആയ കാര്യങ്ങളും മാറ്റാനും അതു പോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എപ്പോഴും മാറ്റാൻ വേണ്ടിയാണ് കായികം നമ്മളേ സഹായിക്കുന്നത് എപ്പോഴും ഞാൻ പറയുകയാണേ കായികത്തിൽ ഫുട്ബോളുണ്ട് ക്രിക്കറ്റുണ്ട് ടെന്നീസുണ്ട് അതു പോലെ തന്നെ അത്ലെറ്റിക്സ് സെക്ഷൻസുണ്ട് അങ്ങനേ നോക്കുകയാണെങ്കിൽ കായികത്തിൽ ഞാൻ കളിക്കുന്ന കളിയാണ് ഫുട്ബോൾ ഫുട്ബോൾ പറയുമ്പോഴത്തേനും ഫുട്ബോൾ കളിക്കുന്നവരാൾക്ക് എപ്പോഴും തൻ്റെ ജീവിത്തിലെ ഏറ്റവും കൂടുതലിഷ്ടം തോന്നുന്ന ഫുട്ബോളിനോടാണ് അപ്പോൾത്തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട് കാരണം ജീവിതത്തിലെപ്പോഴും ആരോഗ്യത്തിനും മുൻഘടന കൊടുക്കുന്നവരാണ് ഓരോ ഓരോ കായിക വിനോദം ചെയ്യുന്നാൾക്കാരും അവർക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരായുസ്സ് കൂടുതലായിരിക്കുന്നതാണ് ശാസ്ത്രവും ലോകവും പറയുന്നതു പോലെ തന്നെ നമ്മുടെ ജീവിത്തിലെ കായികത്തിൻ്റെ പ്രാധാന്യമെന്നു പറയുമ്പോഴത്തേനും എല്ലാവരും കായി കായിക പരമായിട്ട് നീങ്ങണം കാരണം ജീവിതത്തിലെ കുറച്ച് നാൾക്കൂടി ജീവിക്കണമെങ്കിൽ കായികയും അതു പോലെ തന്നെ ആരോഗ്യം വേണം കായികം തൊടുന്തോ കൂടുന്തോറും ആരോഗ്യം നല്ലവണ്ണം മെച്ചപ്പെട്ടു കൊണ്ടിരിക്കും കാരണം ഇപ്പോൾ ഉള്ള ജനങ്ങൾ ജിമ്മിലോട്ട് പോകുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മുടെ ലോക രാഷ്ട്രങ്ങൾ തന്നെ ആരോഗ്യത്തിനു വേണ്ടി എന്തേരെ ഇമ്പോർട്ടൻ്റ് കൽപ്പിക്കുന്നു നമുക്കറിയാമല്ലോ എന്തേരെ പ്രധാനപ്പെട്ടതാണെന്ന് കാരണം കായികത്തിൻ്റെ കായികമുണ്ടെങ്കിലേ നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ പോകത്തുള്ളു അതു പോലെ തന്നെ ജീവിത ശൈലിക്കേറ്റവും നല്ലത് കായികമാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കാരണം കായികത്തിൽ എപ്പോഴും ഏറ്റവും നമ്മുടെ മനസ്സിനു സന്തോഷം തരുന്നു നമ്മുടെ ശരീരത്തിന് സന്തോഷം നൽകുന്നു നമ്മുടെ ശരീരം നല്ലതു പോലെ നില നിൽക്കുന്നു അത് തന്നെ വലിയ കാര്യമാണ് കാരണം ജീവിതത്തിൽ ഇപ്പോൾ കുറേപ്പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കാരണം വിഷാദത്തിലും എന്ന ജീവിത ശയ്യ ദിന ദൈന്യന്യ രോഗങ്ങളും ദിന ദയ്ന ജീവിതത്തിലെ കോമണായ രോഗങ്ങളും പിന്നെ പിന്നെ ഡയബെറ്റിക്സ് പിന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ വരുന്നതു തന്നെ കാരണം കായികപരമായുള്ള കായികം കുറഞ്ഞാണ് അവരൊരൂ വ്യായാമം ചെയ്യുകയാണെങ്കിലവർക്ക് ജീവിതത്തിലിച്ചിരിയും കൂടി മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഹാർട്ട് അറ്റാക്ക് വരുന്ന മിക്ക ആളുടെ ലക്ഷണമെന്നു പറയുമ്പോഴത്തേനും കായികം ഒരിടയ്ക്ക് ഉപേക്ഷിച്ചതാണ് ഒരു ഒരു പഠനത്തിൽക്കണ്ടത് ഓക്സ്ഫോഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ പണ്ട് അതിനു പതിനെട്ട് പത്തൊൻപത് വയസ്സിലും അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വയസ്സിൽ ജിമ്മിൽപ്പോയാൾക്കാർക്കാണ് എന്നിട്ട് ഇരുപതാമത്തേ വയസ്സിൽ നിർത്തിയിട്ട് പിന്നെ പൊകാത്ത ആൾക്കാർക്കാണ് അറ്റാ ഹാർട്ട് അറ്റാക്കേറ്റവും കൂടുതൽ വരുന്നത് കാരണം ഹൃദ് രോഗമായ കാര്യങ്ങൾ വരുന്നതവർക്കാണ് കാരണം അവർ പെട്ടെന്ന് വ്യായാമം ചെയ്തിട്ട് പെട്ടെന്ന് വ്യായാമം ചെയ്യാതിരിക്കുമ്പോഴത്തേനും അവരുടെ ഹൃദ്രോഗങ്ങളുടെ കാരണങ്ങൾ കൂടുകയാണ് അങ്ങനെ അത് പറഞ്ഞു കൊണ്ട് അതു പോലെ തന്നെ നമ്മുടെ ഹൃദ്രോഗമായ സംബന്ധങ്ങൾക്കും അതു പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലോരോരോ കാര്യങ്ങൾക്കും ആരോഗ്യം കിട്ടണമെങ്കിൽ കായികം വേണം അതു പോലെ തന്നെ നമ്മുടെ വിശ്വാസം കുറയ്ക്കണമെങ്കിൽ ഓക്സ്ഫോഡിലെ തന്നെ പഠനത്തിൽ വിധേയമായ പ്രൊഫസർ രാജീവ് പറഞ്ഞ പ്രൊഫസർ റോബോട്ട് പറഞ്ഞതു പോലെ തന്നെ വിഷാദത്തിൽ ഏറ്റവും നല്ല കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൈകിയിട്ടൊരു നട നടന്നാൽ മതിയെന്നാണ് പറഞ്ഞ ഒരു മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്ററോ ഒന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ നമ്മളാ നടപ്പിലൂടെ പ്രകൃതിയുമായി ഒത്തിണങ്ങിപ്പോയി അങ്ങനെ നമ്മുടെ വിഷാദത്തിൻ്റെ ഇത് കുറയ്ക്കും അങ്ങനെയാണ് നടക്കുന്നത് വ്യായാമമെന്നു പറഞ്ഞത് കാറ്റഗറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതു പോലെ തന്നെയും ഓട്ടവും ചാട്ടവും പണ്ടത്തെ ജനങ്ങളേറ്റവും കൂടുതൽ നടന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറ കൂടുതലും ആശ്രയിക്കുന്നത് അവരവരുടെ സ്വന്തം വണ്ടികളിലാണ് അവരവരുടെ വാഹനങ്ങളിലാണ് ആ വാഹനങ്ങൾ കാരണം അവർക്കീ ഹൃദ്രോഗമായ അസംബന്ധങ്ങൾ മാനസികവും ശരീരമായ ബുദ്ധിമുട്ടുകളുമുണ്ട് കാരണം മാനസികമോ ശരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റുന്നില്ല അവരാണെങ്കിൽ ജീവിതത്തിലോരോ ഭാഗത്തും സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുന്നു അങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് ജീവിതത്തിൽ നോക്കാം ആരോഗ്യകരമായ ജീവിതശൈലിക്കെപ്പോഴും കായികം ഒരു അതു പോലെ തന്നെ കായികത്തിലുള്ളവരുടെ ഒരു പ്രത്യേകതയാണവരെപ്പോഴും ഏകാഗ്രതയോടെ ഒരു കാര്യത്തിൽ മാത്രമായിട്ടായിരിക്കും അവരുടെ രീതി അന്നേരം പറയുമ്പോഴത്തേനും നമുക്ക് ലോക കായികങ്ങൾ താരങ്ങളെടുത്തു കഴിഞ്ഞാൽ മെസ്സി റൊണാൾഡോ നെയ്മർ അതു പോലെ തന്നെ സച്ചിൻ ടെൻണ്ടുൽക്കർ സുനിൻ ഗവാസ്കർ അതു പോലെ തന്നെയും റോജർ ഫ്രഡർ പിന്നെ അതു പോലെ തന്നെ ക്രിക് ബോളീവോളി വരികയാണെങ്കിൽ റോബർട്ട് അങ്ങനറിഞ്ഞ് കുറേ പേരുണ്ട് കായിക താരങ്ങൾ ഉസേയ്ൻബോൾ അവരുടെയെല്ലാം ഏകാഗ്രത അവരവരുടെ ശൈലിക്കും അവരുടെ ജീവിത ശൈലിക്ക് അവർ വേറെയും സ്ഥലങ്ങളിൽ മെച്ചപ്പെട്ടവരുണ്ട് കാരണം അവരുടെ ഏകാഗ്രത എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കും അവർ അവരുടെ കായിക വിനോദത്തിലവർ ഒന്നാമതെത്താൻ വേണ്ടി അവരെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും അന്നേരമവരുടെ ഏകാഗ്രത കൂടി അവർ ജീവിതത്തിൽ മുന്നേറി അവരെ രീതിയിൽ എന്തു കൊണ്ടെന്നാൽ അത് അവർ അവരവരെ അവരവരുടെ ഓരോരോ ജീവിതത്തിൻ്റെ ഒന്നാമതെത്താൻ നോക്കുന്നു അത് കാരണം അത് ഏകാഗ്രതയേ മെച്ചപ്പെട്ടതു കൊണ്ട് മാത്രമാണ് കാരണം ഏകഗ്രതയോടവർ അവരുടെ കായിക വിനോദത്തിൽ മാത്രം നോക്കുന്നു എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന അവരുടെ കായികത്തിൽ അവരുടാരോഗ്യം ജീവിത ശൈലിക്കെപ്പോഴും മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ വിഷാദമെന്നു വന്നാൽ ഭാരം കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും ലോക സംഘടനയാണ് എപ്പോഴും പറയുന്നവരുടെ നിങ്ങൾ ഒരു വൈകീട്ട് നടക്കാൻ പോകൂ അല്ലെങ്കിൽ നിങ്ങൾ വ്യായാമം നടക്കുന്നത് വ്യായാമം ചെയ്യുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ കുറേക്കുറേ മുന്നേറും അതു പോലെ തന്നെ കുറച്ച് കൂടി മുന്നേറാൻ വേണ്ടി എപ്പോഴും നമുക്ക് സഹായിക്കുന്നത് കായികമാണ് കായികമെന്നു പറയുമ്പോഴത്തേനും നമ്മുടെ വിഷാദം കുറയ്ക്കാനും വിഷാദത്തിൽ ഏറ്റവും സങ്കടപ്പെട്ട അവസ്ഥയാണ് ആത്മഹത്യയിലോട്ട് പോകുന്നത് ആത്മഹത്യയ തന്നെ ഒരു സ്പോട്ട്സുകാർ പറഞ്ഞാണ് എനിക്ക് വിഷാദം വന്നു ആത്മഹത്യയിലൂടെ പക്ഷെ എനിക്ക് സ്പോർട്ട്സെന്ന കാരണത്താൽ എൻ്റെ വ്യായാമവും എൻ്റെ സ്പോർട്സും ഞാൻ പിന്നെ സ്പോട്ട്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേനെൻ്റെ വ്യായാമവും കോൺസൻട്രേറ്റ് ചെയ്തപ്പോൾ തന്നെയെൻ്റെ വിഷാദമെന്ന രോഗം പാതി മാറി പാതി ഞാൻ അതു പോലെ തന്നെ സ്പോർട്സിൽ നടക്കാൻ പോയും എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയും അതു പോലെ തന്നെ ഓടാനും ചാടാനും പോയപ്പോഴത്തേനും എൻ്റെ വിഷാദം പിന്നെയും കുറഞ്ഞുവെന്നാണവർ പറയുന്നത് അങ്ങനെ ജീവിതത്തിലെപ്പോഴും നടക്കാൻ നടന്നു കൊണ്ടിരിക്കേണ്ട കാര്യമാണ് വ്യായാമം വ്യായാമത്തിലൂടെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിക്കും ഏകാഗ്രത നൽകിയും ആരോഗ്യത്തിനും പ്രധാനം നൽക്കുന്നതാണ് വ്യായാമം വ്യായാമത്തിലൂടെ ജീവിതത്തിൻ്റെ കുറച്ചു കൂടി കൂടി നാൾ ജീവിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ അമിതമായ വ്യായാമമെന്നു പറയുമ്പോഴത്തേനും ജിമ്മിൽപ്പോയി ഓവറായിട്ട് വേയ്റ്റെട്ത്ത് താങ്ങാൻ പറ്റാത്ത വേയ്റ്റെട്ക്കുമ്പോഴത്തേനും അപ്പോഴവർക്ക് അവരേക്കാളും ആത്മഹ അപ്പോൾത്തന്നെയവർക്ക് ഹൃദ്രോഗ സംബന്ധങ്ങൾ വരും അതുപോലങ്ങനെന്നെ ചില സമയത്ത് അത് പ്രശ്നമാക്കാൻ കാരണമുണ്ട് അത് പക്ഷേ എന്തു പറഞ്ഞാലും വ്യായാമം ചെയ്യുമ്പോഴത്തേനാണാരോഗ്യമായി ജീവിത ശൈലിക്ക് കായിക വിനോദം വായാ വ്യായാമം ചെയ്യുമ്പോഴാണാരോഗ്യമായി ജീവിത ശൈലിക്കും അതു പോലെ തന്നെ വിഷാദം കുറയ്ക്കാൻ പറ്റും അങ്ങനെയാണ് സ്പോട്ട്സിൻ്റെ അല്ലെങ്കിൽ കായികത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോട്ടൻസ്